എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ ഒരു വാർഷികാഘോഷ പരിപാടിക്ക് ഞാനൊരു പാട്ട് പാടുകയുണ്ടായി ഒരു പഴയ പാട്ട് തുമ്പി വാ പാട്ടാണ് പാടിയത് കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോത്സാഹനമാണ് കിട്ടിയത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല നല്ല കയ്യടിയും പ്രസൻ്റേഷനും അങ്ങനത്തെ എല്ലാം കിട്ടി എല്ലാവരും പറഞ്ഞു നല്ല നന്നായി പാടുന്നുണ്ടെന്ന് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇതുവരെ ഒരു സ്റ്റേജിലും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല പാടിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് വിളിച്ചപ്പം പെട്ടെന്ന് എന്തോ ഒരു തട്ടിക്കൂട്ടി ഫോണിൽ നോക്കി ഒരു പാട്ടുപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ പാട്ട് പാടിയതിനുശേഷം എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും എന്നുള്ളൊരു ഭയങ്കര ഒരു ചമ്മൽ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതോടുകൂടി പിന്നെ എല്ലാവരും പറഞ്ഞു ഇനി പാടണം സ്റ്റേജിൽ ഒക്കെ പാടണം എന്നൊക്കെ പറഞ്ഞു പിന്നെ പാടാൻ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പരിപാടിക്കൊക്കെ വിളിച്ചാലും ഒരു ചെറിയൊരു ചമ്മലാണ് ഇനി അവർ കളിയാക്കുമോ അങ്ങനെയൊക്കെ ഓർത്തിട്ട് നല്ല നല്ലൊരു അനുഭവമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരേയും നല്ലൊരു പ്രോത്സാഹനം കിട്ടി